ഇതിൻ്റെ ഇൻ്റെർനെറ്റ് സംവിധാനത്തോടുകൂടി ഉപയോഗിക്കപ്പെടുന്ന മീറ്റിംഗ്കൾ പലതും പങ്കെടുത്തിട്ടുണ്ട് അപ്പം അതിൻറ്റേതായ ഒരു വെളിച്ചത്തിൽ പറഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല അഭിപ്രായമാണ് എനിക്കോട് എനിക്ക് അതിനോട് യോജിക്കാനായിട്ട് സാധിക്കുന്നത് എന്തെന്നാൽ ഒരു സംഘടനാ സംവിധാനം വഴി ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂട്ടുക എന്നുള്ളതും അതിൻറ്റേതായ ചിലവ് കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ ചെലവുകളക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള പിന്നെ സൂ മീറ്റിംഗ്കൾ ഒക്കെ നടത്തുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ വാട്സാപ്പ് ആയാലും ധൃതഗതിയിലുള്ള എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്നതൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പറയുമ്പോഴ് ഇന്ന് ഈ ഒരു സാധ്യത എല്ലാവരും മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ചായാലും ഒരു കമ്പനിയുടെ വളർച്ചയെ സംബന്ധിച്ചായാലും ഇന്ന് പലരും പല മേഖലകളിൽ ജോലിയിൽ ആക്കപ്പെട്ടിരിക്കുന്ന അവസരങ്ങളാണ് പലർക്കും ഒരു നിശ്ചിത സമയത്ത് ഒരു കൂട്ടായ്മയായിട്ട് ഒരുമിച്ചു കൂടുവാനായിട്ട് ഇപ്പം വിഷ്വൽ ആയിട്ട് സാധിക്കാത്ത സന്ദർഭങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സംരംഭമാണ് ഈ ഗൂഗിൾ മീറ്റ് ഒക്കെ അപ്പം അത് അവരായിരിക്കുന്ന സ്ഥലത്ത് യാത്രയിൽ ആണെങ്കിൽ യാത്രയിൽ പങ്കെടുക്കാം ഭവനത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആണെങ്കിൽ അതിനുവേണ്ടിയിട്ട് സമയം മാറ്റിവെച്ചുകൊണ്ട് പങ്കെടുക്കാം അല്ലാതെ മറ്റേതൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്കായാലും ഒരു മണിക്കൂറ് മുതൽ അല്ലെങ്കിൽ അരമണിക്കൂറ് ഒക്കെ ഉള്ള ഈ മീറ്റിങ്ങുകൾ വളരെ ഗുണകരമായിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഇത് ഒരുപാട് മേഖലകൾക്ക് ഗുണം ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ ഉടലെടുപ്പ് എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും ഈ ഈ സൂം എന്താണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വാട്സപ്പിലൂടെ ഇങ്ങനെയൊക്കെയുള്ള മാർഗ്ഗങ്ങളുണ്ട് എന്ന് പോലും വിശദമായിട്ടുള്ള ഒരു അറിവ് അറിവ് എന്നെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നത് കൊറോണ കാലഘട്ടത്തിലാണ് ഈ സമയത്ത് പല സ്ഥലങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും എന്താ പറയുക നേരിട്ട് എന്നത് പോലെ തന്നെ മനസ്സിലാക്കുവാനും സാധിച്ച ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടന്നിട്ടുണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ നല്ലതുതന്നെയാണ് അത് ഉപകാരപ്പെടുന്ന മേഖലയിൽ ഉപകരിച്ചാൽ അത് നല്ല ഒരു സംവിധാനം തന്നെയാണ് എല്ലാവർക്കും ഗുണം ചെയ്യും അപ്പോഴ് ഇതും ഒരു മനുഷ്യൻ്റെ എന്താ പറയുന്നത് ഈ ലോകത്തിൻറ്റേതായ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു മേഘലയാണ് അപ്പം അതിൽ എന്നെ സംബന്ധിച്ച് പലപ്പോഴും ഞാൻ പല മീറ്റിംഗ്കളൊക്കെ കൂടിയപ്പോഴും അതൊരു നല്ല കാര്യമായിട്ട് കാരണം മെനക്കെട്ട് സമയം മെനക്കെടുത്തി യാത്ര ഒഴിവാക്കുന്ന ഒരു അവസ്ഥ അതുപോലെ അതിനുവേണ്ടിയിട്ട് അവിടം വരെ പോയി തിരിച്ചുവരാനുള്ള സമയം ചെലവഴിക്കുന്ന അവസ്ഥ നമ്മുടെ നിൽക്കുന്ന സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വളരെ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഇപ്പോഴും അത് പലപ്പോഴും കടന്ന് ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ ഒരുപാട് മീറ്റിങ്ങ്കളായിട്ട് ഒക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വളരെ നല്ല കാര്യമായിട്ടാണ് ഈ മേഘലയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് നൂറ് ശതമാനമാണ് ജനങ്ങൾക്ക് എന്നുള്ളത് അത്യാവശ്യം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയവരെ സംബന്ധിച്ച് മനസ്സിലാക്കിയിയിട്ടുള്ളവരെ സംബന്ധിച്ച് ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു സംവിധാനം കൂടിയാണ് അപ്പം ഒട്ടനവധി മേഖലകൾക്ക് ഇത് അനുഗ്രഹം ആകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാ